എന്നെ സംബന്ധിച്ചെനിക്ക് ക്ലാസിക്കലും മോഡേണും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് ക്ലാസിക്കൽ ഡാൻസും അതുപോലെ മോഡേൺ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ അവസരങ്ങളൊക്കെ കുറവായിരുന്നുവെങ്കിലും എനിക്ക് കളിക്കാനുള്ള ഒരു സ്കില്ല് ഉണ്ട് പിന്നെ ഇപ്പോൾ ഒരു പാട്ട് ഇട്ടുതന്നാൽ പെട്ടെന്ന് അത് ക്ലാസിക്കൽ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഞാൻ കളിക്കാൻ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ കളിക്കുകയും ചെയ്യും എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല രണ്ടും ഇഷ്ടമാണ് ഞാനിഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ബാഗ്രൗണ്ടീത്തന്നെ എൻ്റെ ചേച്ചിമാരും ഒക്കെ ഡാൻസ് കളിക്കുന്നവരാണ് പിന്നെ കുഞ്ഞിലേതൊട്ടിങ്ങനെ അങ്ങനെ കളിച്ചും കണ്ടും ഒരു ശീലമുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നൃത്തം പഠിക്കാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്കൂള് ആന്വേഴ്സറി കാര്യങ്ങൾക്കൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു ഒരു സ്കൂള് ആന്വേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറ്റം ഒക്കെ നടത്തിയത് അപ്പോൾ അതിനൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ലിങ്ങ് ആയിരുന്നു ആ ഒരു അനുഭവം ഒക്കെ അത് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാനായിരുന്നുവെങ്കിലും എനിക്ക് ഭയങ്കര ഒരു നല്ല ഒരു അനുഭവം തന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം എനിക്ക് ഒരുപാട് എൻ്റെ ചേച്ചിമാരെയപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരിയങ്ങനെ അവസരങ്ങൾ ഒരുപാടങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിലും കിട്ടിയ അവസരങ്ങളൊക്കെ മാക്സിമം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതുപോലെ ഒക്കെത്തന്നെയാണ് മാക്സിമം നന്നായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് താങ്ക്ഫുള്ള് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു സ്കില്ലും അത് തന്നെയാണ് കാരണം ഡാൻസ് എന്ന് പറയുന്നത് എന്തോ ഒരു ബ്ലഡ്ഡിലടങ്ങിയിരിക്കുന്ന ഒരു സംഭവംതന്നെയാണ് അപ്പം അതുകൊണ്ട് എനിക്കത് കൂടുതലും ഫോക്കസ്സ് ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടംതന്നെയാണ് പിന്നെ ഒരുപാട് ചാൻസുകളൊക്കെ കിട്ടുമ്പോഴും ആ ചാൻസുകളൊന്നും നഷ്ടപ്പെടാതെ നോക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നുകഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്യ്യും മാക്സിമം പിന്നെ ക്ലാസിക്കലും മോഡേണ് എന്നും തിരിവുകളൊന്നും കാണിക്കില്ല അല്ലാതെ തന്നെ എനിക്ക് കുറച്ചുകൂടെയും നല്ല ആക്റ്റീവ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നത് ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാനതിന് നല്ല രീതിക്ക് ഫോക്കസ്സ് ചെയ്യുന്നു പിന്നെ ക്ലാസിക്കൽ ഇഷ്ടപ്പെടാൻ പ്രത്യേകം ഒരു കാരണം പറഞ്ഞാൽ അതായത് അത് കളിക്കുന്ന രീതി സ്റ്റൈല് ആക്ഷൻസ് കണ്ണുകളൊക്കെ പോകുന്നത് ഇതെല്ലാം എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് പിന്നെ മോഡേൺ ഡാൻസ് എന്ന് പറയുമ്പോൾ മോഡേൺ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരെപ്പോലെ അടിച്ച് പൊളിച്ച് നല്ല ആ ഒരു ത്രില്ലിങ്ങ് തരുന്നതാണല്ലോ അപ്പം അതുകൊണ്ട് അതും അങ്ങനെത്തെ രീതിയിലും ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് ഇപ്പം ഇപ്പോൾ ഒരു കുട്ടികളെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർ ചെയ്യുന്നില്ലായെങ്കിൽ അല്ലേ നമ്മുടെ രീതിക്കനുസരിച്ച് അവർ വരുന്നില്ലായെങ്കിൽ അവരെ വരുത്താനൊക്കെയായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ട് പിന്നെ മാക്സിമം ഞാനെൻ്റെ നല്ല രീതിക്ക് ട്രൈ ചെയ്യും അതാണ് മെയ്ൻ ആയിട്ട് പറയാനുള്ളത് ട്രൈ ചെയ്ത് ഞാനത് കൂടുതൽ ഫോക്കസ്സ് ചെയ്ത് മുമ്പോട്ട് കൊണ്ട് വരും പിന്നെ ക്ലാസിക്കലും മോഡേണും അതുപോലെ വെസ്റ്റേൺ ഡാൻസ് ഒക്കെയാണെങ്കിലും ഡപ്പാങ്കൂത്ത് ഡാൻസിനൊക്കെ എന്നെ എനിക്ക് വലിയ ഒരു വലിയ ഒരു പ്രാധാന്യം എൻ്റെ ലൈഫില് അതിനുണ്ട്